ആ അത്

നാളെ നാളെ ഷോപ്പ് ഓപ്പൺ ആകുമോ ഷോപ്പ് നാളെ ഓപ്പൺ ആകുമോ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് സംസാരിക്കാം ഓക്കെ താങ്ക്യൂ